കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സാമ്പത്തി കേരളത്തിൻ്റെ കലാ പാരമ്പര്യങ്ങൾ മൂല്യങ്ങൾ കലാ പാരമ്പര്യങ്ങളും അതിൻ്റെ മൂല്യങ്ങളും ഉള്ള സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വൈവിധ്യമാർന്ന ചരിത്രത്തെയും സമൂഹങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതിന് സാഹിത്യം സംഗീതം നൃത്തം ചിത്രകല ശില്പനിർമ്മാണം അങ്ങനെ പലപല കലാസ്വാദനം ഉണ്ട്

നമ്മൾ ആ സംഗീതമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെ സന്തോഷപ്രദമാക്കുവാനും നമ്മളുടെ മനസിൻ്റെ ആ മാനസികമായ ബുദ്ധിമുട്ടിനൊക്കെ ഒരു പരിഹാരം വരുവാൻ ഒരു മാനസികമായ അയവ് ലഭിക്കുന്നതിനും ഉന്മേഷം ലഭിക്കുന്നതിനും സംഗീതം നല്ല ഒരു കലയാണ് നൃത്തം ആസ്വാദനത്തിന് വേണ്ടി നൃത്തം അതും നല്ലൊരു കലയാണ് ചിത്രകല നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ആശയങ്ങളെ ചിത്രത്തിലൂടെ വരച്ച് കാട്ടുവാൻ ചിത്രകല അതും നമുക്ക് വളരെയധികം പ്രയോജനം നൽകുന്നു പണ്ട് കാലം മുതലുള്ള രാജാക്കന്മാരുടെ കാലം മുതൽ ചിത്രകലയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അവർ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തി പഴയ രാജാക്കന്മാരാണെങ്കിൽ തന്നെ ചിത്രകലാ നല്ല ഉണ്ടായിരുന്നു അവരുടെ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മൾക്ക് പലയിടത്തും കാണുവാൻ സാധിക്കും ശില്പനിർമ്മാണം അതും ശിൽപ്പങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രകാരൻ്റെ ദൈവികമായ കഴിവാണ് ആ കഴിവും നമ്മളുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക ബന്ധങ്ങളിൽ പെട്ടു ബന്ധപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ ചിത്ര നിർമ്മാണം ചിത്ര നിർമ്മാണം അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ കേരളത്തിലെ സാംസ്കാരികമായും കലാപരമായും വളരെ മുൻപന്തിയിൽ വളരെ പണ്ട് മുതലേ രാജാക്കന്മാരുടെ കാലം മുതലേ നിലനിന്നിരുന്ന ആ പ്രോത്സാഹനം ഇന്നും തുടർന്ന് കൊണ്ട് പോകുന്നു അങ്ങനെ അതുപോലെത്തന്നെ ചാക്യാർകൂത്ത് അതും നല്ലൊരു കലയാണ് ചാക്യാർകൂത്തും അതുപോലെത്തന്നെ കഥകളി ഭരതനാട്യം അങ്ങനെ ഉള്ള ഐറ്റങ്ങൾ നല്ല നല്ല കലകളാണ് ഇത് ആസ്വദിക്കുക എനിക്ക് അങ്ങനെ ഇതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് വളരെ താൽപ്പര്യമുണ്ട് അങ്ങനുള്ള പരിപാടികളെല്ലാം പലയിടത്തും കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്